അപ്പോള് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള വിഷയമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് വ്യത്യസ്ത പഠനശൈലികളോ കഴിവുകളോ ഉള്ള വിദ്യാർത്ഥികളെ സ്കൂളുകൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് അപ്പം ഇത് വളരെ ഒരു കാലിക പ്രസക്തിയേറിയ ഒരു വിഷയം തന്നെയാണ് കാരണം പഠനശൈലികളും ശേഷികളും വ്യത്യസ്തമായ വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്കൂളുകൾക്ക് സ്വീകരിക്കാവുന്ന ചില മാർഗ്ഗങ്ങളാണ് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അത് എന്തെങ്കിലും മാർഗ്ഗങ്ങള് എന്തായാലുമുണ്ട് അപ്പോള് അതിന്റെ ചില മാർഗ്ഗങ്ങളാണ് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് അപ്പോള് ഒന്നാമതായി പറയുമ്പോള് തന്നെ വ്യക്തിഗത അധ്യാപന സമീപനം തന്നെയാണ് ഒന്നാമത് അതായത് ഇൻഡിവിജവലൈസ്ഡ് ഇൻസ്ട്രക്ഷന് ആണ് ഇത് ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകളും അതേപോലെ ക്ഷമതകളും അതേപോലെ അതനുസരിച്ചാണ് പഠനം ഒരുക്കുന്നത് അതായത് ഒരുക്കേണ്ടത് ഇതുപോലെയൊക്കെ എങ്ങനെയൊക്കെ ഇപ്പോള് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ എല്ലാ വിദ്യാർത്ഥികള്ക്കും ഒരേപോലെ കഴിവുണ്ടായിക്കൊള്ളമെന്നില്ല ഏ അപ്പോള് നമ്മള് അതിനനുസരിച്ചിട്ടുള്ള പഠനസൗകര്യങ്ങള് എഡ്യൂക്കേഷൻ സ്റ്റൈല് നമ്മൾ അവർക്കുവേണ്ടി സെറ്റ് ചെയ്തുകൊടുക്കണം അതുപോലെ രണ്ടാമത്തെ കാര്യം പറയുമ്പോള് പ്രത്യേക പരിശീലനം അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇപ്പോള് ഇൻകേസ് ഒരു ലോവർ കാസ്റ്റിലുള്ള വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കില് അവർക്ക് ഒരു പഠന പ്രതിബന്ധങ്ങളുള്ള കുട്ടികൾക്ക് പ്രത്യേകം അധ്യാപകരുടെ സഹായത്തോടുകൂടി ഒരു ടാർഗറ്റഡ് സ്പോർട്ട് നൽകണം ഇപ്പോള് ലോവർ കാസ്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കില് അവർക്ക് അവർക്ക് കുറച്ച് പ്രിവിലേജ് കൊടുത്തിട്ട് അവർക്ക് അവരുടേതായ ഒരു എജ്യുക്കേഷനില് അവർക്ക് നൽകണം മറ്റുള്ളവരെക്കാളും കാരണം അവര് ബാക്ക്വേഡ് ആണ് അപ്പോള് ബാക്ക്വേർഡിലുള്ളവരെക്കൂടി ഫ്രണ്ടില് എത്തിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അതിനായിട്ട് പരിശ്രമിക്കണം അതുപോലെ പലതരം പഠനശൈലികളുള്ള അനുയോജ്യമായ പാഠപദ്ധതികൾ അതായത് മൾട്ടിസെൻസറി ലേണിങ് അതായത് ദൃശ്യങ്ങള് ശബ്ദങ്ങള് പ്രവർത്തനങ്ങള് എന്നിവയുൾപ്പെടുത്തി പഠനം കൂടുതൽ ആകർഷകമാക്കണം അതായത് കുട്ടികൾക്ക് വെറും ടീച്ചർ ക്ലാസ് ഒരു ബോറിംഗ് ഉണ്ടാകും അപ്പോള് ഇവർക്കിപ്പോള് ഉദാഹരണത്തിന് ഒരു ക്ലാസെടുത്ത് കൊടുക്കുമ്പോള് ഇപ്പോള് വൺ ടു ത്രീ ആണെന്നുണ്ടെങ്കില് അതിൻ്റെ ഒരു കാർട്ടൂണൈസ്ഡ് സാധനങ്ങളുണ്ടാകും ഒരു വീഡിയോസ് അത് ഇട്ട് കൊടുക്കുമ്പോള് അവർക്ക് മൈൻഡില് അത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടീച്ചര് ക്ലാസ് എടുത്തുകൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ അല്ലെങ്കില് ഇമാജിറി രീതിയില് ശബ്ദങ്ങളോ അല്ലെങ്കില് ഒരു ഒരു സോങ്ങ് മുഖേന നമ്മള് സെറ്റ് ചെയ്തുകൊടുക്കുമ്പോള് അവർക്കത് മൈൻഡില് സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ ടെക്നോളജി ഉപയോഗം അതായത് യൂസ് ഓഫ് ടെക്നോളജി അതായത് എജ്യുക്കേഷൻ സോഫ്റ്റ്വെയര് ഓഡിയ ബുക്ക്സ് അതേപോലെ സ്ക്രീൻ റീഡേഴസ് മുതലായവ അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി അതായത് ഐ ടി സെക്ഷനില് വളരെയധികം ഇംപ്രൂവ് ചെയ്യണം എല്ലാവരും ഏത് കുട്ടിയായാലും അത് ഇന്ന പണക്കാരുടെ കുട്ടി അതേപോലെ ബാക്ക്വേർഡ് കുട്ടി അങ്ങനെ തരംതിരിക്കാന് പാടില്ല എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ നൽകണം അതേപോലെ വിവിധ മൂല്യനിർണ്ണയ രീതികള് അതായത് എക്സാം അതായത് പരീക്ഷ ഒരു സെറ്റപ്പ് അപ്പോള് എല്ലാവർക്കും ഒരേ രീതിയില് എഡ്യൂക്കേഷൻ നൽകിയതിന് ശേഷം പിന്നെ അവർക്ക് ഒരു നല്ല രീതിയില് എല്ലാവർക്കും എക്സാമും കാര്യങ്ങളും സെറ്റ് ചെയ്തതിനുശേഷം മറ്റേ ഒരു റാങ്കും കാര്യങ്ങളും ഔട്ട് ചെയ്യുക ഇൻകേസ് ബാക്ക്വേർഡിലുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയതെങ്കില് അപ്പോള് അവർക്കതിൻ്റെതായ ഒരു പ്രിവിലേജ് ഒരു അംഗീകാരം അച്ചീവ്മെൻറ്സും കാര്യങ്ങളും അവർക്ക് സെറ്റ് ചെയ്തുകൊടുക്കണം